ആശാരിപ്പണി പ്ലംബിംഗ് തുന്നല് കോഴിവളർത്തൽ മൃഗസംരക്ഷണം ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കണമെന്നില്ല വീട്ടിലിരുന്നു കണ്ടു പഠിക്കുന്ന ജോലികളൊക്കെയാണ് ഇത് ഇതൊക്കെ കൂടുതലും ആശാരിപ്പണിയൊക്കെ ആശാരി ചെയ്യുന്ന അപ്പന്മാരുണ്ടെങ്കില് അവരുടെ മക്കള് അതു കണ്ടുപഠിക്കും അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ മക്കളും അത് കണ്ടുപഠിക്കും അതുപോലെ തന്നെ പ്ലംബിങ്ങെയ്യുന്ന കാരണവമാരാണെങ്കില് അവര് മക്കളുടെ ചിലപ്പോൾ അവർക്കിഷ്ടമുണ്ടെങ്കില് അവരും അത് ശ്രദ്ധിച്ചിരുന്ന് കണ്ട് പഠിക്കുകയൊക്കെ ചെയ്യും തുന്നലാണേലും അമ്മമാര് ഇരുന്നു തയ്ക്കുന്നുണ്ടെങ്കില് അതു കണ്ടു പഠിക്കുന്ന ഒത്തിരി മക്കളുണ്ട് അവരും ആ രീതിയിലേക്ക് വരുന്നുണ്ട് ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ചല്ലേ ഓരോരുത്തരും മുമ്പോട്ടിറങ്ങുകയുള്ളു പിന്നെ കോഴി വളർത്തലൊക്കെ ആണേലും വീട്ടിൽ കാണിക്കുന്നതുകണ്ട് എല്ലാവർക്കും ചെയ്യാമല്ലോ കോഴി വളർത്താനും ഒത്തിരി ഇപ്പോള് ഒരു വീട്ടില് കോഴികളെയൊക്കെ വളർത്തുകയാണെങ്കില് ഇപ്പോള് നമ്മള് വീട്ടിൽ കോഴികളൊക്കെ വളർത്തുമല്ലോ അപ്പോള് നമുക്ക് കോഴി വളർത്തിയാലും മുട്ട അതിൻ്റെ കാഷ്ടങ്ങളൊക്കെ വളത്തിന് ഉപയോഗിക്കാം അതൊക്കെ നമ്മുടെ ആരോ മൊട്ട നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമാണെന്നൊക്കെ അറിയും അപ്പോള് അതൊക്കെ നമ്മളതനുസരിച്ച് നമ്മള് കോഴി വളർത്തും കോഴി വളർത്തി അതൊക്കെ കണ്ട് മക്കളും അതുകണ്ട് വളരുകയല്ലേ അപ്പോള് അതു മക്കളും അതു ചെയ്യും അപ്പോള് മക്കള്ക്കും അതിനുവേണ്ടിയിട്ട് ഇപ്പോള് സ്കൂളുകളിൽ അതൊന്നും പഠിപ്പിക്കണമെന്നൊന്നുമില്ല അത് കണ്ടുപഠിച്ച് വീട്ടിലിരുന്ന് കണ്ടുപഠിച്ച് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മൃഗങ്ങളെ ആണേലും നമ്മള് ഇതെല്ലാം നമ്മള് വളർത്തിയിട്ടുണ്ടല്ലോ അപ്പോള് വീടുകളിലിരുന്ന് കണ്ടു പഠിക്കാനുള്ള കാര്യങ്ങളും മൃഗങ്ങളെ വളർത്തി അവർക്ക് പുല്ല് ചെത്തുകയും അവരുടെ മൃഗങ്ങളുടെ കാഷ്ടങ്ങളൊക്കെ വാരിയും മാറ്റിയിടുകയും അതും വളത്തിന് ഉപയോഗിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ ചെയ്യുന്നതൊക്കെ കണ്ടുപഠിക്കാവുന്നതേ ഉള്ളൂ അത് സ്കൂളുകൾ പഠിപ്പിക്കണമെന്നില്ല പക്ഷെ സ്കൂളുകളിൽ പോയി ചെറുപ്പത്തില് കുറച്ചെങ്കിലും പോയി സ്കൂളുകളിലൊക്കെ പോയി പ്ലംബിംഗ് ഒക്കെ പഠിക്കാനാണെങ്കില് സ്കൂളുകളിൽ പോയി പഠിച്ച് കുറച്ചെങ്കിലും പഠിച്ചതിൻ്റെ ശേഷം ഇതൊക്കെ ആണ് വിദ്യാഭ്യാസം കുറച്ചെങ്കിലും വേണം എന്നാലേ ഉള്ളൂ കൂടുതലും ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഭംഗിയായിട്ടും സ്പുടമായിട്ടൊക്കെ ചെയ്യാനായിട്ട് ഒരു കഴിവു വരും വിദ്യാഭ്യാസം കൂടുതലുണ്ടെങ്കില് അപ്പോള് വിദ്യാഭ്യാസം ഉള്ളതു നല്ലതാണ് പിന്നെ ഇല്ലേലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം കണ്ടുപഠിച്ചും ഒക്കെ ചെയ്യുന്ന ആണെങ്കില് ഒത്തിരി പേരുണ്ട് അങ്ങനെ നമ്മുടെ ആശാരി പണിക്കാര്ക്കൊക്കെ ഒത്തിരി വിദ്യാഭ്യാസമൊന്നുമില്ല അവരൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ടല്ലേ ചെയ്തോണ്ടിരുന്നത് ഓരോ കാര്യങ്ങളൊക്കെ പിന്നെ കൂടുതല് ഭംഗിയിലും കൂടുതല് പണിക്ക് പണി കൂടുതല് ഈ പല രീതിയിലുള്ള പണികളൊക്കെ ചെയ്യുമല്ലോ വളരെ മനോഹരമായ താമരയുടെ രീതി താമര മയില് അങ്ങനെയുള്ള എടെയൊക്കെ ജീവികളുടെയൊക്കെ ഷെയിപ്പിലൊക്കെ ഉണ്ടാക്കും അപ്പോള് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കൂടുതല് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് ശ്രദ്ധിച്ചൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും കൊത്തു പണികളൊക്കെ ഒത്തിരി വരുത്തും പല രീതിയില് മനോഹരമായ രീതിയില് കൊത്തുപണികളൊക്കെ ചെയ്യുന്നവരൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി അതൊക്കെ വിദ്യാഭ്യാസംകൊണ്ട് കുറച്ചുകൂടിയൊക്കെ ആലോചിച്ച് ചെയ്യാനുള്ള കഴിവുകളൊക്കെ അവർക്കു കിട്ടും